ഇപ്പഴത്തെ യുവ ഇപ്പഴത്തെ യുവ തലമുറ കൃഷി ഒരു തൊഴിലായിട്ട് ആവാൻ തീർത്തും താൽപ്പര്യപ്പെടുന്നില്ല കൃഷി എല്ലാവരും ഉപേക്ഷിച്ച് പുതിയ പുതിയ ജോലി കഴിവതും അധ്വാനിക്കാതെ അധ്വാനിക്കാനാർക്കും കഴിയുന്നില്ല അധ്വാനിക്കാനാരും താൽപ്പര്യപ്പെടുന്നില്ല എല്ലാവരും പുതിയ പുതിയ എന്തെങ്കിലും വേറെ തൊഴിലുകള് തേടി പോവുകയാണ് ആണ് ഒന്നാമത് തന്നെ നമ്മളെ നാട്ടില് ആവും യുവജനങ്ങളളൊന്നും തന്നെ നിൽക്കാനായിട്ട് താൽപ്പര്യപ്പെടുന്നില്ല അതൊത്തിരി ഒര് തരത്തിൽ പറഞ്ഞാൽ കൃഷി ചെയ്ത് കൃഷി കൊണ്ട് വിജയിക്കാൻ സാധിക്കുന്നില്ല കൃഷി നമ്മള് വളരെയധികം വളരെയധികം കഷ്ടപ്പെടണം എന്നാൽ അതിന് അനുസരിച്ചുള്ള നമുക്ക് അതിന് അനുസരിച്ചുള്ള നമുക്ക് അതിന് അനുസരിച്ചുള്ള മെച്ചം നമുക്ക് കിട്ടുന്നില്ല അതിന് അനുസരിച്ച് അത്കൊണ്ട് യുവ യുവതലമുറകളെല്ലാം എന്തെങ്കിലും സ്ഥിര വരുമാനം കിട്ടുന്ന തൊഴിലുകൾ തേടി പോകുവാണ് പിന്നെ ഇപ്പം എല്ലാവരും യുവജനങ്ങളെല്ലാം ആണ് നേഴ്സിംഗ് അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഓ സ്ഥിര വരുമാനമുള്ള ഒരു ജോലി സമ്പാദിക്കുന്നതിലാണ് ഉത്സാഹം കാണുന്നുള്ളത് എന്നാല് ചില ചില ആളുകൾ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കൃഷിയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒര് രീതി കൃഷി രീതികളെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ കാർന്നോന്മാരുടെ കൂടത്തിൽ കൂടി നെൽകൃഷി അങ്ങനെ നെൽകൃഷിയും പിന്നെ പാവൽ കൃഷി പയർ കൃഷി അങ്ങനെ പല പല കൃഷികളും ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ട് വളരെ വിരളവായിട്ട് വളരെ വിരളവായിട്ട് പിന്നെ പിന്നെ പിന്നെ പിന്നെ പണ്ടൊക്ക കൃഷി രീതി ചെയ്യണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു ഇപ്പം പിന്നെ ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൃഷി ചെയ്യാനായിട്ട് പുതിയ ഒത്തിരി ഒത്തിരി സംവിധാനങ്ങളൊക്കെ അത് വന്നിട്ടുണ്ട് അത്കൊണ്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനെളുപ്പമാണ് ഇപ്പോൾ എല്ലാ എന്ത് ചെയ്യാനും എല്ലാം ചെയ്യുന്നതിന് എല്ലാത്തിനും മെഷീൻ മെഷീൻ സംവിധാനങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് എല്ലാം ചെയ്യുന്നതിന് എളുപ്പമുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ ആളുകൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് എന്നാലും വളരെ അതുകൊണ്ട് ഉള്ളൂ പിന്നെ ഞങ്ങള് കൃഷി ചെയ്ത് നമുക്ക് അത് തന്നു ഒരു ഒര് തരത്തില് നമ്മളങ്ങനെ മെച്ചപ്പെട്ട് വരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല പിന്നെ അതിന് വേണ്ടി നന്നായി പരിശ്രമിച്ച് ഇറങ്ങിയാൽ അത് നമുക്ക് സാധിക്കും

നല്ല രീതിയിൽ കൃഷി ചെയ്ത് മുൻ ഇതായിട്ട് മുൻപോട്ട് പോകുന്നവര് ഉണ്ട് നല്ല രീതിക്ക് പോകുന്ന ഉണ്ട് പിന്നെ ചെറുപ്പക്കാര് ചെറുപ്പം എന്താ എന്ത് വേണമെങ്കിലും ചെറുപ്പക്കാര് കൂടുതലായി ഇതിന് മുന്നോട്ട് വരുന്ന വരുന്നതായ വരാനത്ര താൽപ്പര്യപ്പെടില്ല കാരണം അതിൻ്റൊരു ഇതാണത് അവരെ ഇപ്പം ഇപ്പം ആരുമിപ്പം ഒന്നും പഴയ പോലെയൊന്നും ആരുമിപ്പം കഷ്ടപ്പെടാനും കൂടുതൽ താൽപ്പര്യം ഒട്ടും തന്നെ താൽപ്പര്യം കാണിക്കാതെ എല്ലാവരു എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ എങ്ങനെ എളുപ്പത്തിലങ്ങനെ പണം സമ്പാദിക്കാം എന്ന് എന്നാണ് നമ്മള് നോക്കുന്നത് അത്കൊണ്ട് കഷ്ടപ്പെടാനൊന്നും ആരും തയ്യാകുന്നില്ല പിന്നെ നല്ല കഷ്ടപ്പെട്ട് നമ്മള് എന്നാ ഇതിന് വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നവര് വളരെ അപൂർവ്വമായിട്ട് വളരെ അപൂർവായിട്ട് കഷ്ടപ്പെടുന്നവരും ഉണ്ട് വളരെ ഒരുപാട് കഷ്ടപ്പെടാനും താൽപ്പര്യപ്പെടുന്നവരും ഉണ്ട് പിന്നെ അങ്ങനെയാണതിൻ്റെ കാര്യങ്ങള് പക്ഷേ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ അതിൻ്റെ ഒര് രീതികള് ഇപ്പം എന്നാ മരുന്നടിക്കാനാണെങ്കിലും ഇന്ന് ഇപ്പം എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്ത് മരുന്നടിക്കാനാണെങ്കിലും വേണം നനയ്ക്കാനാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായ എല്ലാത്തിനും അതിൻ്റേതായ പുതിയ പുതിയ പുതിയ വിദ്യകളു മെഷീനുകളുവെല്ലാം വന്നിട്ടുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് ഒക്കെ ചെയ്യും ചെയ്ത് കുറെ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാൻ തയ്യാറായാൽ അത് അനുസരിച്ച് ഇതാവും